ഇപ്പം ഈ പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതലും തെരഞ്ഞെടുക്കുന്ന കോഴ്സെന്നു പറഞ്ഞാൽ എല്ലാവരും തന്നെ നേഴ്സിംഗ് കോഴ്സിലേക്കും ആണ് ഏറ്റവും കൂടുതലും വിദ്യാർഥികൾ പഠിക്കാനായിട്ട് പോകുന്നത് പ്ലസ് ടു കഴിഞ്ഞ ഉടനെ തന്നെ അവർ നേഴ്സിങ്ങിന് അപേക്ഷ വച്ചു നേഴ്സിംഗ് കോഴ്സുകൾക്ക് ചേരുകയാണ് കാരണം ഒരുപാട് ജോലി സാധ്യതകൾ നേഴ്സിങ്ങിന് നേഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ഉണ്ട് നേഴ്സിങ്ങ് മാത്രമല്ല നേഴ്സിംഗ് അക്കൗണ്ടൻറ്റ് അക്കൗണ്ടൻറ്റ് ആ പിന്നെ ആ ഇത്രയൊക്കെ ഇതിനാണ് ഏറ്റവും കൂടുതലും ജോലി സാധ്യതയുണ്ടെന്ന് പറയുക പിന്നെ അത്യാവശ്യം കുറച്ചു പേരാണ് പോലെ ഒരു ഒരു ഫിഫ്റ്റി പേസെൻറ്റേജ് ആൾക്കാരും ടീച്ചേഴ്സ് ആവാൻ ടീച്ചറാവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരും ഉണ്ട് അപ്പം കൂടുതലും കോഴ്സെന്ന് കൂടുതലും തെരഞ്ഞെടുക്കുന്ന കോഴ്സെന്നു പറയാൻ നേഴ്സിംഗ് ആണ് നേഴ്സിംങ്ങ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പോലെയുള്ള പെട്ടെന്ന് കിട്ടുന്ന ജോലികൾ കോഴ്സുകളാണ് ജോലി പെട്ടെന്ന് കിട്ടുന്ന കോഴ്സുകളെയാണ് കൂടുതലും വിദ്യാർഥികൾ പഠിക്കാനായിട്ട് തെരഞ്ഞെടുക്കുന്നത് പുറത്തേക്ക് പോവാനുള്ള ആഗ്രഹം കൊണ്ടും വിദേശ രാജ്യങ്ങളിൽ ജോലി കിട്ടാനും ഒക്കെയുള്ള ആഗ്രഹം കൊണ്ടാണ് ഈ ഈ ഈ കോഴ്സ് തെരഞ്ഞെടുത്തു കൊണ്ടിരിക്കുന്നത് കാരണം അതിൽ ഒരുപാട് ശമ്പളത്തിൽ ജോലി ചെയ്യണം ഉയർന്നു ഉയർന്ന ജോലി ആയിരിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹം കൊണ്ടാണ് കൂടുതലും കുട്ടികൾ ഇവിടെ ഈ നമ്മുടെ നാട്ടിൽ നിന്നും പുറത്തേക്കള്ള രാജ്യങ്ങളിലേക്ക് ജോലിക്ക് പോകുന്നത് പഠിക്കാനായിട്ട് പോയിണ്ടിരിക്കുന്നത് കോഴ്സുകൾ പഠിക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അപ്പോൾ ആ ഈ കോഴ്സിനെ പറ്റി അപ്പം

പിന്നെ നമ്മടെ നാട്ടിൽ നിന്നാൽ പോലും ഈ കോഴ്സുകൾ ഈ കോഴ്സുകൾ നമുക്ക് നാട്ടിലുണ്ടെങ്കിൽ പോലും ഇവിടെ പഠിക്കുന്നവർക്ക് ഒരു ഇവർക്ക് ജോലി സാധ്യത നമ്മുടെ നാട്ടിൽ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ കൂടുതലും ആൾക്കാർ പുറത്തേക്ക് പുറം രാജ്യങ്ങളിൽ പുറം നാടുകളിലേക്ക് നാടുകളിലേക്കും മറ്റുമൊക്കെയാണ് ഈ കോഴ്സിന് അപേക്ഷ നമുക്ക് ഈ കോഴ്സിന് അപേക്ഷ വച്ചു ചേർന്നു പോകുന്നത് പഠിക്കാനായിട്ട് വിദേശ രാജ്യങ്ങളിലാണ് ഏറ്റവും കംഫർട്ടബളിറ്റി കാരണം ഇപ്പോൾ ജർമ്മനി പോലെയുള്ള രാജ്യങ്ങളിൽ ജർമ്മനി പോലെയുള്ള അവിടങ്ങളിലൊക്കെ ആണെങ്കിൽ സ്റ്റൈഫൻറ്റോട് കൂടി പഠിക്കാനുള്ളൊരു അവസരവൊണ്ട് അപ്പ നേഴ്സിംഗങ് പഠിക്കുന്ന കുട്ടികൾക്ക് കൂടുതൽ ഇങ്ങോട്ട് പൈസ നൽകി അവര് പഠിപ്പിക്കയും അവിടെ തന്നെ പാർട്ട് ടൈം ആയിട്ട് ജോലി കൊടുത്ത് പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പ ജർമ്മൻ പോലെയുള്ള ഭാഷകൾ പഠിക്കാനും അത് പഠിച്ചു നഴ്സിങ്ങിന് പോകുന്ന വിദ്യാർത്ഥികളുമാണ് ഏറ്റവും കൂടുതലും ഇപ്പം ഈ പ്രദേശങ്ങളിൽ ഉള്ളത് അവിടെ പോയാൽ തന്നെ അവർ അവർക്ക് ഇപ്പോൾ ഒരു വർഷത്തെ കോഴ്സ് ആണെങ്കിൽ പോലും അവർ അവർക്ക് ഒരു വർഷം കഴിഞ്ഞു അവർക്ക് ജോലി കിട്ടും എന്നുള്ളതാണ് ഉറപ്പുള്ളതു കൊണ്ടാണ് അവർ ഈ കോഴ്സ് തെരഞ്ഞെടുക്കുകയും ആ തെരഞ്ഞെടുത്തത് പോവുകയും ചെയ്യുന്നത് ഈ കോഴ്സ് പഠിക്കുന്നതിനോടൊപ്പം അവർക്ക് ജോലി ചെയ്യാൻ ജോലി ചെയ്തുകൊണ്ട് അവരുടെ ഫീസ് ചെറിയ ചെറിയ അത്യാവശ്യങ്ങൾ അവർക്ക് അവിടെയുള്ള അത്യാവശ്യങ്ങളും ഫുഡ് പോലെയുള്ള കാര്യങ്ങളൊക്കെ മെയിൻ്റെയിൻ ചെയ്തു പോവാനും ഒക്കെ സാധിക്കും അപ്പം അവർക്ക് കിട്ടുന്ന സ്റ്റൈഫൻ്റ് ഉയോഗിച്ചു അവർക്ക് അവരുടെ ഫീസ് അടയ്ക്കാനും അവരുടെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്യാനും പറ്റും അപ്പം ഏറ്റവും ഉചിതമായ ഒരു കോഴ്സ് ആണ് നേഴ്സിംഗ് കോഴ്സ് എന്നു വിചാരിച്ചിട്ടാണ് എല്ലാവരും നേഴ്സിംഗിന് പോവുന്നതും ഏറ്റവും നല്ല കോഴ്സുമാണ് നേഴ്സിംഗ് കോഴ്സ് അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ വിദ്യാർഥികൾ ഇപ്പോൾ നേഴ്സിംഗ് കോഴ്സസ് തെരഞ്ഞെടുക്കുകയും ജർമ്മൻ പഠിച്ചു ജർമ്മനിയിലേക്ക് പോവാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നു അപ്പം അങ്ങനെ ഉള്ള കോഴ്സുകൾ തെരഞ്ഞെടുക്കുന്നത് കൊണ്ട് ഏറ്റവും ഗുണം തന്നെയാണ് ഉള്ളത്